ഞാൻ വന്നത് എൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കു വേണ്ടിയാണ് അതായത് ഇപ്പം എൻ്റെ പേരിൻ്റെ ഏറ്റവും അവസാനത്തെ നാമം മാറ്റി എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ പേര് ആഡ് ഒന്ന് അതിൽ രേഖപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പം അതിന് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല അതിൻ്റെ എന്തെല്ലാം രേഖകൾ ഞാൻ കൊണ്ടുവരണം എന്തെല്ലാം മാറ്റങ്ങൾ ഞാൻ ചെയ്യണം ഏതെല്ലാം ഓഫീസുകളിൽ ഞാൻ പോകണമെന്ന് ഒന്ന് വിശദീകരിച്ചു പറയുകയാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഒന്ന് അവിടെയൊക്കെ ഞാൻ ഒന്ന് പോയി അത് അതിൻ്റെ രേഖകളൊന്ന് കളക്റ്റ് ചെയ്തു കൊണ്ട് വരികയാണെങ്കിൽ അത്രയ്ക്കും നന്നായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എന്തുവാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മൾ ഒരു തെറ്റു ചെയ്താൽ നമുക്ക് അറിയാൻ മേലാത്തൊരു കാര്യത്തിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ ഒരു തെറ്റു വന്നു കഴിഞ്ഞാൽ അതുതന്നെ ഏറ്റവും വലിയ ഒരു കുഴപ്പമായിരിക്കും അപ്പം അതിനെ പറ്റി ഒന്ന് പറയുകയായിരുന്നെങ്കിൽ ഞാൻ അതിനെ പറ്റി വിശധ വിവരങ്ങൾ അന്വേഷിച്ചു അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ ഞാൻ സന്നദ്ധനാണ് അപ്പം സന്നധിയാണ് അപ്പം അതൊന്ന് ചെയ്തു തീർത്ത് തരികയാണെങ്കിൽ ഞാൻ അത് ഡീറ്റൈൽഡ് ആയിട്ട് ഞാൻ തന്നേക്കാം